ആ എൻ്റെ പക്കലുള്ള പ്രധാനപ്പെട്ട നെയ്ത്തിനും തുന്നലിനും ഉള്ള സാധനങ്ങൾ അല്ലെങ്കിൽ ഉപകരണങ്ങൾ നൂലുകൾ യന്ത്രങ്ങൾ എന്നു പറയുന്നതിൽ പ്രധാനമായിട്ടുമുള്ളത് തയ്യൽ തയ്യലുമായിട്ട് ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ എൻ്റെ പക്കൽ ഒരു തയ്യൽ മഷീൻ മാത്രമേ ഉളളൂ ആ തയ്യൽ മഷീനിലാണ് ഞാൻ തയ്ക്കുന്നതും എൻ്റെ വീട്ടിലുള്ള കുട്ടികൾക്കു വേണ്ട എന്തെങ്കിലും വസ്ത്രങ്ങൾക്ക് എന്തെങ്കിലും എന്തെങ്കിലും കേടുപാടുകൾ സംഭവിച്ചാലും അതു ഞാൻ മെച്ചപ്പെടുത്തുന്നത് എൻ്റെ വീട്ടിലുള്ള തയ്യൽ മഷീനിൽ കൂടി മാത്രമാണ് ഇതിൽ കൂടുതൽ മെച്ചാപ്പെടുത്താൻ അടുത്തുള്ള അടുത്തുള്ള ഷോപ്പിൽ പോയി ആ അവിടുത്തെ അടുത്തുള്ള കടയിൽ ചെന്ന് അവിടുത്തെ ആറ് ആ അതു നന്നാക്കുന്ന ആളെ കൊണ്ടു വന്ന് അതു ശരിയാക്കുക എന്നുള്ളതാണ് ഞാൻ പ്രധാനമായിട്ട് ചെയ്യുന്നത്